ഇരുപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നാല് ഒന്പത് രണ്ടായിരത്തി നാല് രണ്ട് ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് മുപ്പത് ആറ് രണ്ടായിരത്തി പതിനേഴ്